നമുക്ക് നല്ല രീതിയിൽ വൈദ്യുതി ലഭിക്കുന്നുണ്ട് വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ വൈദ്യുതി മുടങ്ങുക പറയുമ്പോൾ ചില സമയൊക്കെ പവർ കട്ട് ഉണ്ടാവും അത് പറയാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പവർ കട്ട് ഒന്നുമില്ല പിന്നെ വൈദ്യുതി മുടങ്ങുന്ന ഇത് എന്ന് പറയുന്നത് നമുക്ക് മഴക്കാലത്തിന് മുൻപ് അവർ നമ്മുടെ പിന്നെ ലയിൻ കമ്പിയിലേക്കൊക്കെ ചാഞ്ഞിരിക്കുന്ന മരം കഷണങ്ങൾ അതായത് കൊമ്പൊക്കെ വെട്ടിക്കളയാൻ വേണ്ടി ഇലക്ട്രിസിറ്റിയിൽനിന്ന് ആൾക്കാർ വരും അപ്പോൾ മാത്രമാണ് നമുക്ക് വൈദ്യുതി മുടങ്ങുന്നത് ആ രാവിലെ അവരെപ്പോഴാണോ വരുന്നത് വൈകുന്നേരം അവരെത്ര നേരമാണോ വെട്ടുന്നത് അത്രയും നേരം വൈദ്യുതി മുടങ്ങും അതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നേരത്തെ അവരൊരു മെസ്സേജ് പോലെ ഗ്രൂപ്പിലൊക്കെ വരും അപ്പോൾ നമ്മൾ നേരത്തെ പിന്നെ അരയ്ക്കാനുള്ളത് അരയ്ക്കുകയോ അല്ലെങ്കിൽ പിന്നെ അതുപോലെത്തന്നെ വെള്ളമടിക്കാനൊക്കെ അടിച്ചു വയ്ക്കും ചിലപ്പോൾ അതറിഞ്ഞില്ല അതറിയാത്തവരാണെങ്കിൽ കറണ്ട് വന്നിട്ട് അടയ്ക്കാ അടിയ്ക്കാൻ നോക്കും പിന്നെ കാലാവസ്ഥേന്റെ വ്യത്യാസത്തിൽ നമുക്ക് വൈദ്യതി മുടക്കം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പോസ്റ്റിലേയ്ക്കോ അല്ലെങ്കിൽ കയറിൽ പിന്നെ വള്ളി നമ്മുടെ ലൈൻ കമ്പിയിലേക്ക് വല്ല മരമോ തെങ്ങോ ഒക്കെ വീഴുമ്പോൾ നമ്മൾ പിന്നെ അത് മുറിച്ചു മാറ്റുന്ന സമയം വരെ അല്ലെങ്കിൽ അന്നൊരു രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം വരെ നമുക്ക് കറണ്ട് ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്